എനിക്ക് ഒരു ദിവസം വെള്ളം ചിലവുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണീക്കുമ്പോൾ തൊട്ട് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ചിലവ് വരുന്നുണ്ട് നമ്മളിപ്പോൾ ബാ ബാത് റൂമിൽ പോകാൻ ആണെങ്കിലും നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്കിപ്പോൾ വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിപ്പം ഒരു നിമിഷം പോലും നമ്മൾ വെള്ളം കുടിക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല വെള്ളത്തിന് പകരം നമ്മളിപ്പം പലതും എന്തെങ്കിലും തിന്ന് ഇപ്പം തിന്ന് തിന്നൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നമ്മുടെ ശരീരത്തിന് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ ഏത് നേരവും നമ്മൾ വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളം കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ പല്ല് തേക്കുക ബാത് റൂമിൽ പോകുക മുഖം കഴുകുക വെള്ളം നമുക്ക് പെട്ട അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളത് അതായത് നമ്മളിപ്പോൾ എന്ത് ഒരു പാചകം ചെയ്യുമ്പോൾ ആണെങ്കിലും അതിനകത്ത് നമ്മൾ വെള്ളവും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെള്ളം നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഘടകമാണ്